ഹലോ അതെ ആ എന് എന്താണ് ടീച്ചറേ ആണോ അവള്ക്ക് ഇന്നലെ സ്കൂളില് നിന്ന് വന്നപ്പോഴേ തലവേദന ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ തലവേ ഭയങ്കര തലവേദന ആയിട്ട് കിടക്കുവൊക്കെ ചെയ്തിരുന്നു അപ്പോൾ പാരസെറ്റമോൾ ഉള്ളത് കൊടുത്തു അപ്പോൾ കുറച്ച് കുറഞ്ഞിരുന്നു എന്ന് പറഞ്ഞിന് രാവിലെ പ്രശ്നം ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് ഈ ജോലിക്ക് ഒക്കെ പോകേണ്ടത് കൊണ്ട് ഞാൻ പിന്നെ വീട്ടിൽ ഇരുത്തിയില്ല പത്താം ക്ലാസ് അല്ലേ അപ്പോൾ അതാണ് ഞാൻ പിന്നെ സ്കൂളിലേക്ക് തന്നെ വിട്ടത് പോര്ഷന്സ് നോക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് അതാണ് ഞാന് സ്കൂളിൽ വിട്ടത് ആ ആ ഇല്ല ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഈ ഇപ്പം പിന്നെ ഉറക്കം ഒക്കെ കുറവാണ് പിന്നെ പഠി പഠിക്കാന് ഇരുന്നിട്ട് രാത്രിയൊക്കെ രാവിലെ ഒരു അഞ്ച് മണിക്ക് ഒക്കെ എഴുന്നേറ്റ് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഉറങ്ങാറുള്ളൂ അപ്പോൾ അതിന്റെ പ്രശ്നം ആണോ എന്നറിയില്ല ഇടയ്ക്ക് ഇടയ്ക്ക് തലവേദന ആണെന്ന് പറയുന്നുണ്ട് ആ

ആ ആ ഞാന് സ്കൂളിലേക്ക് എന്നാൽ വരാം പിന്നെ ഒരു എനിക്കിപ്പം ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എത്തിയാൽ മതിയോ എനിക്ക് ഇവിടെ പിന്നെ ഒരു വര്ക്ക് ഉണ്ടായിരുന്നു എന്നാൽ അതും കൂടെ കഴിഞ്ഞിട്ട് അവിടെ എത്താം ഞാന് എന്നാൽ ഹസ്ബന്ഡിനെ കൂടേ വിളിക്കാം അപ്പോൾ അവരെയും കൂടെ അറിയിച്ചിട്ട് ഞങ്ങൾ വരാം ആ ആ ആ ഭക്ഷണം കഴിച്ചിരുന്നോ അവൾ ആ ആ ആ എന്നാൽ ഞങ്ങൾ എത്താം ഞാന് പെട്ടെന്ന് തന്നെ എത്താം പതിനഞ്ച് മിനിട്ടിൻ്റെ ഉള്ളിൽ എത്താം ആ ആ ആ ആ എന്നാൽ ഞങ്ങൾ ഇപ്പം എത്താം

ആ ആ മൂന്നുമണി ആകുമ്പോഴേത്തേക്കും എത്തും അതിനു മുന്നേ എത്തും ഞങ്ങൾ ഇപ്പം തന്നെ ഇറങ്ങാം ആ ആ എന്നാൽ ഓക്കേ